യുവാക്കൾക്ക് പൊതുവേ പാരമ്പര്യ നൃത്ത രീതികൾ പഠിക്കാൻ വലിയ താൽപ്പര്യം ഉള്ളതായി കാണപ്പെടുന്നില്ല കൂടുതലും പെൺകുട്ടികളാണ് ഇത്തരം പാരമ്പര്യ രീതികൾ പഠിക്കാൻ കൂടുതലും താൽപ്പര്യം കാണിക്കുന്നത് അത് നമുക്ക് സ്കൂൾ കലോത്സവങ്ങളിലും മറ്റും കാണാനും സാധിക്കുന്നു അതായത് കലോത്സവങ്ങളിൽ ഇതുപോലെയുള്ള നൃത്ത ഇനങ്ങൾ കൂടുതലും പങ്കെടുക്കുന്നത് പെൺകുട്ടികളാണ് ഇതിൻ്റെ കാരണം ഒരുപക്ഷേ സമൂഹത്തിൻ്റെ തെറ്റായ ധാരണയായിരിക്കാം അതായത് പെൺകുട്ടികളായിരിക്കണം ഇത്തരത്തിലുള്ള പാരമ്പര്യ നൃത്ത നൃത്ത രീതികൾ അഭ്യസിക്കേണ്ടത് എന്ന തെറ്റായ ധാരണ പൊതുവേ സമൂഹത്തിൽ ഉള്ളതായി കണ്ട് വരുന്നു അതിനാൽ യുവാക്കൾ പൊതുവേ ഇതിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ് കണ്ട് വരുന്നത് എന്നാൽ നൃത്തം അഭ്യസിക്കുന്ന യുവാക്കളുമുണ്ട് അവർ മത്സരങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്നു യുവാക്കൾ പാരമ്പര്യ നൃത്ത രീതികൾ പഠിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാരമ്പര്യ നൃത്ത രീതികൾ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഇത് പഠിക്കാൻ താൽപ്പര്യം കാണിച്ച് മുൻ മുൻപിലോട്ടിറങ്ങുക തന്നെ വേണം